ഒരു ഓൺലൈൻ ഗെയിമല്ലെങ്കിൽ ഓഫ്ലൈൻ ഗെയിമുകള് നിർമ്മിക്കാൻ പറയാണെന്നുണ്ടെങ്കില് ഞാൻ നിർമ്മിക്കുന്നത് ഒരേപോലെ ഒരേ സമയത്ത് നമ്മള് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും ഒരേപോലെ പ്രായമുള്ളവർക്കായാലും അങ്ങനെ ഏത് പ്രായക്കാർക്കൊരേ പോലെ കളിക്കാന് പറ്റിയ അവർക്കെല്ലാവര്ക്കുമൊരേ ആ ഒരു ഒരേ രീതിയില് കളിച്ചുപോവാന് പറ്റുന്ന തരത്തിലുള്ള ഗെയിമായിരിക്കും ഞാനുണ്ടാക്കുന്നേ കാരണം നമ്മളിപ്പോള് വീടുകളില് നടന്നുവരുന്ന വെച്ചേഴിഞ്ഞാ പിള്ളാരാണെന്നുണ്ടെങ്കിൽ പിള്ളാരെ സെറ്റ് മാത്രം ഇരുന്ന് സംസാരിക്കും മുതിർന്നവരാണന്നുണ്ടെങ്കില് മുതിർന്നവരുടെ ആ ഒരു സെറ്റ് മാത്രം സംസാരിക്കും കുറേ കൂടെ പ്രായമുള്ള കൊറ് അപ്പാപ്പന്മാര് അമ്മാമമാരൊക്കെന്നുണ്ടെങ്കില് അവര് ആ ഒരു സെറ്റ് അവരിരുന്ന് സംസാരിക്കും അപ്പോള് അങ്ങനെ കൂടാണ്ട് ഒരേ സമയം കുട്ടികൾക്കും കുറച്ച് മുതിർന്നവർക്കും അതിനേകാട്ടില് മുതിർന്നവർക്കും പിന്നെ അമ്മച്ചിമാർക്കും പ്രായമുള്ള അമ്മച്ചി അമ്മച്ചിമാർ അപ്പച്ചമ്മാർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാന് പറ്റുന്ന വിധത്തിലുള്ള ഗെയിമായിരിക്കും ഞാൻ ഉണ്ടാക്കുക കാരണം ഇന്ന് വീടുകളിലും അല്ലെങ്കിലിന്ന് സമൂഹത്തില് പലപ്പോഴും അത് നശിച്ചു പോവുന്ന സമയം ഇപ്പോള് അപ്പാപ്പന്മാരൊക്കെ നമ്മളോട് സംസാരിക്കാൻ വരുമ്പോള് പിള്ളേര് പറയുന്നയ്യോ ദേ ഉപദേശിക്കാന് വന്നു എന്ന് പറയും അല്ലെങ്കിൽ പിള്ളാര് ഫോണും കൊണ്ടിരിക്കുന്ന കാണുമ്പോള് അപ്പാപ്പന്മാര് പറയും ഇതിങ്ങളൊക്കെ ഫോണ് തന്നെയാൾക്കാരോട് മിണ്ടുന്നില്ലാന്ന് പറയും അപ്പോള് അങ്ങനെ അവര് തമ്മിലൊരു ചെറിയ ചെറിയ ചെറിയ ചെറിയ പ്രശ്നങ്ങള് നടക്കുന്നുണ്ട് അതൊന്നുമില്ലാണ്ടിപ്പോള് അപ്പാപ്പന്മാർക്കൊരേ പോലെ ഗെയിമിനകത്ത് ഇങ്ങനെയൊക്കെയാണെന്നു പറഞ്ഞ് കാണിച്ചുകൊടുത്തവർക്ക് എളുപ്പത്തിന് കളിക്കാന് പറ്റുന്നൊരു ഗെയിം അതുപോലെ മുതിർന്ന കുഞ്ഞുങ്ങള്ക്കായാലും എല്ലാവർക്കൊരേ പോലെ എളുപ്പത്തില് കളിക്കാന് പറ്റുന്നൊരു ഗെയിം അതായിരിക്കും ഞാന് ഉണ്ടാക്കുക ഓൺലൈനാണെങ്കിലും അതേ സമയം ഓഫ്ലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലിപ്പെനിക്ക് തോന്നും ഒത്തിരി ഇതേ പോലുള്ള കളി കളികളുണ്ട് നമുക്ക് പ്രായമുള്ളവരെയും കുട്ടികളെയും എല്ലാവരെ ഒരു പോലെ ഒന്നിച്ച് കൂട്ടാന് പറ്റുന്ന തരത്തിലുള്ള ഒത്തിരി കളികളുണ്ട് ഇപ്പോള് പാട്ടൊക്കെ പാടി നമ്മള് കളിക്കില്ലേ അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ കളിക്കും അപ്പോള് ആ അന്താക്ഷരി എന്നൊക്കെ പറയുമ്പത്തേക്കിനുമെന്നു പറഞ്ഞാല് ഒരേ സമയം ഇപ്പാ ഒരു വാക്ക് പറഞ്ഞുകഴിഞ്ഞ് ഇപ്പോള് ഒരു ക എന്നു പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞേയ്ഞ്ഞാ കുഞ്ഞുങ്ങള്ക്കായാലും വലിയവർക്കായാലും പ്രായമുള്ളവർക്കായാലും ആ ക വച്ച് പാടാനായിട്ടൊത്തിരി പാട്ടുകളുണ്ടാവും അപ്പോള് അതുന്ന് പറയുമ്പോള് എല്ലാ പ്രായക്കാർക്കും കളിക്കാന് പറ്റുന്നൊരു കളിയാണല്ലാണ്ട് ഇന്ന പ്രായക്കാരെന്നൊന്നിലെല്ലാ പ്രായക്കാർക്കൊന്നിച്ചിരുന്ന് കളിക്കാന് പറ്റുന്നൊരു കളിയാണ് അപ്പോള് അതുപോലത്തെ ആ കളി എന്നല്ല അതുപോലത്തെ ഏതെങ്കിലും ഒരു കളി അല്ലെ ഗെയിമായിരിക്കും ഞാനോൺലൈനായാലും ഓഫ്ലൈനായാലും ഞാന് നിർമ്മിക്കുന്നെ കാരണം എനിക്ക് അങ്ങനത്തൊരു പ്രായഭേദമന്യേ എല്ലാവരൊന്നിച്ചിരുന്ന് എല്ലാവരുടെ അറിവുകളങ്ങോട്ടിങ്ങോട്ടും പങ്കുവയ്ക്കുന്ന വിധത്തിലുള്ളൊരു കാര്യത്തോടാണ് താൽപ്പര്യം അങ്ങനത്തൊരു സമൂഹത്തോടും അങ്ങനത്തൊരു എ ഞാനെന്തെങ്കിലൊരു സാധനം ചെയ്യുമ്പോള് അതിതേ പോലെ എല്ലാ പ്രായക്കാർക്കും എല്ലാ ജാതി ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരു പോലെ കിട്ടുന്നതാവണം എല്ലാ ആൾക്കാർക്കൊരുപോലെ ഉപയോഗിക്കാന് പറ്റുന്നതാവണം എല്ലാ ആൾക്കാർക്കൊന്നിച്ചിരുന്ന് അതില് രസം കണ്ടു പിടിക്കാന് പറ്റുന്നാവണം അതുപോലത്തൊരു ഗെയിമായിരിക്കും എന്നോട് പറയാണെന്നുണ്ടെങ്കില് ഞാനുണ്ടാക്കുന്നത്